ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതലും എനിക്ക് ഈ ഇൻസ്റ്റഗ്രാം മാത്രമേ ഉള്ളൂ പിന്നെ വാട്സ്ആപ്പ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ആണ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണൂ അതിലാണ് ഈ ഫോട്ടോഗ്രാഫറുടെ അതായത് ഒരുപാട് ഫോട്ടോഗ്രാഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സമൂഹമാധ്യമങ്ങളിൽ ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ദ നെയിം ഈസ് ലിൻസൺ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമില് ഒരു അക്കൗണ്ട് ഉണ്ട് ആ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെന്ന് വെച്ചാൽ അയാൾ എടുക്കുന്ന ഫോട്ടോയൊക്കെ അടിപൊളിയാണ് അതുപോലെതന്നെ നമ്മൾ ഒറ്റ പൈസ പോലും മേടിക്കാണ്ടാണ് ആൾ ഈ ഫോട്ടോ എടുക്കുന്നത് കാരണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ് അതായത് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ഫോട്ടോയൊക്കെ അതായത് പിന്നെ അതായത് അച്ഛനമ്മമാര് അപ്പൂപ്പൻ അമ്മൂമ്മമാര് പിന്നെ കുറെ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരുടെയൊക്കെ ഫോട്ടോസാണ് കൂടുതലായും എടുക്കുന്നത് അയാളുടെ കഴിവ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ തന്നെ നമുക്ക് ഒരുപാട് കാണാം പറ്റും വെറുതെ ചെയ്ത് കൊടുക്കുന്നതാണ്